കേരളത്തിൽ ഒരുപാട് സാംസ്കാരിക സാമൂഹിക പരിപാടികൾ ഉണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ആറ്റുകാൽ പൊങ്കാലയും മകരജ്യോതി അതുപോലെത്തന്നെ തൃശ്ശൂർ പൂരം കാസർഗോഡ് ജില്ലയിൽ നടക്കുന്ന ഭരണി മഹോത്സവം ശ്രീകൃഷ്ണ ജന്മാഷ്ടമി തുടങ്ങിയ ഒരുപാട് സാംസ്കാരിക പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ട്രക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ യുവാക്കൾക്ക് ഹരം പകരുന്നത് ഒരു വിനോദമാണ് ട്രക്കിങ് ട്രക്കിങ് കൂടുതലും ഇഷ്ടപ്പെടുന്നത് യുവാക്കളാണ് ട്രക്കിങ്ങിലൂടെ അവർ നല്ല രീതിയിൽ എൻജോയ്മെൻറ് കണ്ട കണ്ടെത്താൻ ശ്രമിക്കുന്നു ഒരു ഹരമായിട്ടാണ് യുവാക്കൾ യുവാക്കളും യുവതികളും ട്രക്കിങ് ഇൽ ഏർപ്പെടുന്നത് വയനാട് പോലെയുള്ള നാടുകളിലാണ് കൂടുതലായും ട്രക്കിങ് കാണപ്പെടുന്നത് ഞങ്ങളുടെ ജില്ലയിലൊന്നും ട്രക്കിങ്ങിന് അധികമായി പ്രാധാന്യം കൊടുക്കാനുള്ള സ്ഥലങ്ങൾ

വയനാട് മേഖലകളിലാണ് കൂടുതൽ ട്രക്കിങ് ചെയ്യുന്നത് അതുപോലെ മൂന്നാർ ഭാഗങ്ങളിലും ട്രക്കിങ് നല്ലൊരു ട്രക്കിങ് മേഖലയിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് വളർന്ന് വരുന്ന കുട്ടികൾക്കും ട്രക്കിങ്ങിനോട് താത്പര്യം കൂടിക്കൂടി വരുന്നു ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾ കൂടുതലായും ട്രക്കിങ്ങിലേക്ക് തിരിയുന്നത് അവർ അതിൽ ഒരു നല്ലൊരു എൻജോയ്മെൻറ് ആനന്തം കണ്ടെത്തുന്നത് കൊണ്ടാണ് പിന്നീട് അതിനെക്കുറിച്ചുള്ള വരുംവരായികകളൊന്നും അവർ നോക്കാറില്ല എൻജോയ്മെൻറ് മാത്രമാണ് അതിലുള്ള ഒരു ഹരമാണ് അവർ അതിലൂടെ കണ്ടെത്തുന്നത് ട്രെക്കിങ് ശാരീരമായി നല്ല കഴിവും നല്ല മെന്റൽ പവറും അതുപോലെത്തന്നെ ശാരീരിക ക്ഷമതയും ആവശ്യമുള്ള ഒരു സാംസ്കാരിക പരിപാടിയാണ് ട്രക്കിങ് ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആറ്റുകാൽ പൊങ്കാല സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ അമ്മയുടെ ആ സ്ഥാനത്തെക്കുറിച്ച് ജനങ്ങൾ പറയുന്നത് സ്ത്രീകൾ ആണ് അവിടെ പൊങ്കാലയിടാൻ എത്തുന്നത് ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് പൊങ്കാലാ ഉത്സവത്തിൽ പൊങ്കാലയിടാൻ ദേവിക്ക് പൊങ്കാലയിടാൻ അവിടെ എത്തുന്നത്

ദേവിയുടെ സന്നിധിയിൽ നിന്നും തീ കൊണ്ടുവന്ന് അടു ടുപ്പിൽ തീ കുട്ടിയാണ് പൊങ്കാലയിടുന്നത് പൊങ്കാല ദേവിയ്ക്കുള്ള നൈവേദ്യമായാണ് കാണുന്നത് സ്ത്രീകൾ അവിടെച്ചെന്ന് പൊങ്കാലയിടുമ്പോൾ ശബരിമലക്ക് പോയ ഒരു അനുഭവവും അനുഭൂതിയുമാണ് ലഭിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ആറ്റുകാലമ്മക്കുള്ള നൈവേദ്യമാണ് പൊങ്കാല പൊ ആറ്റുകാൽ പൊങ്കാലയിടുന്നത് മകരജ്യോതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അയ്യപ്പ ഭക്തന്മാർ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമേറ്റ് ശബരി മലയിലേക്കെത്തുകയും അവിടെ മകരം ഒന്നാം തീയ്യതി മകരവിളക്ക് തെളിയുകയും ചെയ്യുന്നു ദൈവത്തിന്റെ ഒരു സാന്നിദ്ധ്യമായിട്ടാണ് മകരവിളക്കിനെ ജനങ്ങൾ കാണുന്നത് മകരജ്യോതി മൂന്ന് പ്രാവശ്യം തെളിഞ്ഞു കാണാൻപറ്റും ഓരോ പ്രാവശ്യം തെളിഞ്ഞു വരുമ്പോഴും ജനങ്ങൾ ആനന്ത നിർവൃതിയിൽ അ ആറാടുന്നു അവരുടെ ജന്മം സഫലമായി എന്നാണ് അയ്യപ്പ ഭക്തന്മാർ കണക്കാക്കപ്പെടുന്നത് മകരജ്യോതിയെപ്പറ്റി ഒരുപാട് ദുരൂഹതകളും അഭിപ്രായങ്ങളും വന്നിട്ടുണ്ടെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ അയ്യപ്പ സ്വാമി പ്രത്യക്ഷപ്പെടുന്നതായിട്ടാണ് മകരജ്യോതിയിലൂടെ ജനങ്ങൾ കാണുന്നത് ആകാശത്ത് നക്ഷത്രങ്ങൾ ഉദിക്കുകയും അതോടനുബന്ധിച്ചുമാണ് മകരജ്യോതി തെളിഞ്ഞു വരുന്നത് മകരജ്യോതി കാണുന്ന ഭക്ത ജനങ്ങൾ അവരുടെ ജന്മം സഫലമായി എന്നാണ് കണക്കാക്കപ്പെടുന്നത് പിന്നീട് മറ്റു പല സാംസ്കാരിക പരിപാടികളും ഞങ്ങളുടെ നാട്ടിൽ അരങ്ങേറുന്നു അതിലൊന്നാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ഞങ്ങളുടെ നാട്ടിലുള്ള ഏറ്റവും ജനങ്ങൾ കൂടുന്നതും ഏറ്റവും ആഘോഷകരമായി നടത്തപ്പെടുന്നതും മകര സോറി ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയാണ് നാല് ഭജനമ അയ്യപ്പ സ്വാമി ഭജന മന്ദിരങ്ങളിൽ നിന്നും നാല് ഘോഷയാത്രകൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വന്നു ചേരുകയും അതും മുത്തുക്കുടയും താളമേളങ്ങളും ആഘോഷങ്ങളും ഡാൻസ് നൃത്ത നൃത്യങ്ങളും ടേബിളോകളും തുടങ്ങിയ എല്ലാ പരിപാടികളോടു കൂടി ഘോഷയാത്രകൾ ഒരുമിച്ച് വന്ന് ഒരു സ്ഥലത്ത് സ് ഒന്നിച്ച് ചേരുകയും അവിടെ നിന്ന് മല്ലം ശ്രീ ദുർഗ്ഗാ പരമേശ്വരി അമ്പലത്തിലേക്ക് എല്ലാ ഈ നാല് ഘോഷയാത്രകളും ഒരുമിച്ച് ഒറ്റ ഘോഷയാത്രയായി കാൽനടയായി നടന്ന് എത്തിച്ചേരുകയും ഇവിടെ നിന്ന് കൊണ്ടുവരുന്ന കാഴ്ച്ചകൾ അവിടെ സമർപ്പിക്കുകയും ദേവിക്ക് മുമ്പിൽ സമർപ്പിക്കയും അവിടെ നിന്നു കിട്ടുന്ന അവൽ പ്രസാദം പ്രസാദമായി സ്വീകരിക്കുകയും ചെയ്യുന്നു ഒരുപാട് ജനങ്ങൾ ജനങ്ങളുടെ ഒരുപാട് നാളത്തെ പ്രയത്നം കൊണ്ട് ശ്രീ ഭഗ ശ്രീ കൃഷ്ണ ഭഗവാൻ ഭഗവാന്റെ ജന്മ ദിനമായ ശ്രീ കൃഷ്ണ ജന്മാഷ്ടമി നാളിൽ വളരെ ആഘോഷപൂ പരമായിട്ടാണ് ഇവിടെ നടത്തുന്നത് ഇവിടെയുള്ള ജനങ്ങൾക്ക് അതു വലിയ ഒരു ഉത്സവമായാണ് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ശ്രീ കൃഷ്ണ ജന്മാഷ്ടമി കൊണ്ടാടുന്നത് അതുപോലെതന്നെയാണ് പാലക്കുന്ന് ഭരണീ മഹോത്സവം തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ ഉത്സവം ആയിട്ടാണ് പാലക്കുന്ന് ശ്രീ ഭഗവതീ ക്ഷേ പാലക്കുന്ന് ഭരണി മഹോത്സവം കൊണ്ടാടുന്നത് ഭക്ത ജനങ്ങളുടേ ഒരു പ്രവാഹമാണ് അവിടെ ഉണ്ടാകാറുള്ളത് ഒരുപാട് തിരുമൂൽ കാഴ്ച്ചകളും ടാബ്ലോകളും താളമേളങ്ങളും ചെണ്ടകളും നൃത്ത നൃത്യങ്ങളും എല്ലാം ചേർന്ന് ആഘോഷ പരമായിട്ടാണ് പാലക്കുന്ന് ഭരണീ മഹോത്സവം ജനങ്ങൾ കൊണ്ടാടുന്നത് കേരളത്തിന്റെ പല ഭാഗത്ത് നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും ഭരണീ മഹോത്സവത്തിന് തിരുമുൽ കാഴ്ച്ചയായി ജനങ്ങൾ എത്താറുണ്ട്